എനിക്ക് തീർച്ചയായിട്ടും അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കുന്നത് തന്നെയാണ് ഇലക്ട്രോണിക് പതിപ്പുകൾ വായിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് വായിക്കുമ്പോൾ ഉള്ള ഒരു സുഖം നമുക്ക് ഇലക്ട്രോണിക്

എപ്പോഴും മൊബൈൽ ഡേറ്റായൊക്കെ അവൈലബിളായി അത് ചില സമയം കട്ടായി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുമാത്രമല്ല നമുക്കെപ്പോഴും വായനയുടെ ആ ഒരനുഭവം യഥാർത്ഥ രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ തന്നെ വായിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെതന്നെ ഞാൻ ഓഡിയോ ബുക്ക് ബുക്കുകൾ പല കഥകളും കേട്ടിട്ടുണ്ട് യൂട്യൂബുകൾ യൂട്യൂബിലും അതുപോലെ പല ചാനലുകളിലും ഞാനത് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അത് ആ കഥകൾ കേൾക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ അതിനെക്കാളും ആ ബുക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വായനയുടെ അനുഭവം അല്ലെങ്കിൽ ആ ബുക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വായനയുടെ അനുഭവം ഈ ഓഡിയോ ബുക്കുകൾ നമുക്ക് തന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടുതന്നെ ഞാൻ തീർച്ചയായിട്ടും ഇപ്പോഴും പുസ്തകങ്ങൾ വായിക്കുന്നത് നേരിട്ട് വായിക്കുന്നത് തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്